ആരാ സംസാരിക്കുന്നത് ട്രാവൽ ഏജൻസിന്നല്ലെ അപ്പോൾ ഞാൻ ടൂർ പാക്കേജ് ഒരു പത്ത് ദിവസത്തെ ടൂർ പാക്കേജാണ് നമ്മള് ചെയ്ത് വെച്ചേക്കുന്നത് അതെ പത്ത് ദിവസത്തെ അപ്പോൾ എവിടെക്കാ

ഞങ്ങൾ ട്രിവാൻഡ്രം സ്റ്റേഷനിൽ നിക്കാം വയനാടാണ് ഇപ്പോൾ നിക്കുന്നത് ഞങ്ങളുടെ ഡിസിഷനിൽ ഇപ്പോൾ വായനാടാണ് നിക്കുന്നത്

അപ്പോൾ എങ്ങനെയാ അവിടെ ടൂറിസ്റ്റ് സ്റ്റേഷൻസ്സ് ഒക്കെ എങ്ങനെയാ അപ്പോൾ നമുക്ക് എവിടെ ആയിരിക്കും സ്റ്റേ അ അപ്പൊ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ നിങ്ങള് നോക്കിക്കോളുവല്ലോലെ അപ്പോൾ പാക്കേജിന് എങ്ങനെയാ ഇതൊക്കെ വരുന്നത് റേറ്റൊക്കെ വരുന്നത് അ അ ഫാമിലി പാക്കേജാണ് ഏകദേശം എൺപത് അപ്പോൾ ഈ പൂക്കോട് എന്താ ഇത്ര കാണാൻ ഉള്ളത് അപ്പോൾ ബോട്ടിങ്ങ് ഒക്കെ അവിടെ മെയിൻ ആയിരിക്കും ലെ അതെ അതെ ഫാമിലി ആയിട്ടാണ്

ആണല്ലെ ഞങ്ങൾ ഇപ്പോൾ ഒരു ഏഴ് പേരാണുള്ളത് ചിലപ്പോൾ അത് എട്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരിതിൽ കാൽക്കുലേറ്റ് ചെയ്ത്കഴിഞ്ഞ ഒരു ചെറിയ അതെ ഞങ്ങളിപ്പോൾ രണ്ട് കാറിലായിട്ട് വരാന്നാണ് വിചാരിക്കുന്നത് ഏഴ് പേരുണ്ടല്ലൊ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര സ്റ്റേഷൻസ് ഉണ്ടാവും നമുക്ക് വിസിറ്റ് ചെയ്യാൻ ആയിട്ട്

ഇതില് ട്രെക്കിങ്ങ് ഉൾപെടുന്നുണ്ടൊ ഫോർത്തിലേക്ക് ആയിരിക്കുമോ ഈ ക്ലൈമറ്റിലൊക്കെ അവിടെ ഒക്കെ അലോവ്ഡ് ആയിരിക്കുമോ വിസിറ്റെർസ് ജസ്റ്റ് ഡീറ്റെയിൽസ് ഒന്ന് അറിയാൻ വേണ്ടീട്ട് വിളിച്ചതാണ് അതെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വിളിക്കാം